സർ മെ ഐ കം ഇൻ താങ്ക് യു സർ പേര് മനോജ് ഞാൻ ഇവിടെ പാലക്കാട് നിന്നാണ് പാലക്കാട് കോതംകുന്നം ക്വാളിഫിക്കേഷൻ ഞാൻ പ്ലസ് ടൂ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തത് ഇവിടെ വീട്ടിനടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് ഹൈയർ സെക്കണ്ടറി സ്കൂളുണ്ട് അയിന്ന് പിന്നെ ഡിഗ്രി ബി കോം ചെയ്തു പിന്നെ എം കോം ചെയ്ത് പുറത്ത് ഡിഗ്രീ എ ജെ കെ കോളേജായിരുന്നു യൂണിവേഴ്സിറ്റി അണ്ണാമല യൂണിവേഴ്സിറ്റി ബി കോമായിരുന്നു അത് കഴിഞ്ഞ് എം കോം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ആ എഴുപത്തഞ്ച് ശതമാനം എം കോമിന് ഒര് അറുപത്തിയഞ്ച് ഉണ്ടായിരുന്നു പാസ് ഔട്ട് ആയി വന്നിട്ട് രണ്ടായിരത്തിപ്പതിനാറ് ആ ഇതിന് മുമ്പ് ചെന്നൈയിലൊരു ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ടൻറ്റായിട്ട് അവിടെ ഒരു ഒരു വർഷം വർക്ക് ചെയ്തു പിന്നീട് ബാംഗ്ലൂർ പോയി ആ വേറൊരു പ്രൈവറ്റ് കമ്പനിയിൽ പോയി ആ അതേ ആ സ് അതെ സ്റ്റേ അവിടെ റൂം ഹോം ഹോം എടുത്ത് അവിടെ തന്നെ വർക്ക് ചെയ്യാം ആ ഓക്കെ ആ ഓക്കെ ഇതില് നമുക്ക് സാലറി എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങോ

അവിടെ ഒരുപാട് ഡിസ്റ്റൻസാണേ ഇവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല അപ്പം വീട്ടിലെന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം വയ്യായ്ക ആയ്ക വെച്ചാൽ വരാൻ പറ്റില്ല അപ്പോൾ അപ്പം അവിടെ നിർത്തി ഇപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു ഇൻറ്റർവ്യുൻ്റെ ആഡ് കണ്ടപ്പോൾ അവിടെ നിർത്തി ഇവിടേക്ക് ജോയിനാ ഓക്കെ ആ ഓക്കെയാണ് ആ മെയിൽ ചെയ്താൽ മതി ആ